ഇപ്പോൾ സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നു ചോദിച്ചാൽ ഞാൻ പഠിച്ചത് പകുതി എയ്ഡഡും പകുതി അൺ എയ്ഡഡും ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഫീസൊന്നും കൊടുക്കേണ്ടി വരത്തില്ല എന്നാലും പകുതി ഫീസുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരാവശ്യം വരത്തില്ല എല്ലാം അവർക്ക് ഫ്രീ തന്നെ ആയിരിക്കും മറ്റേത് സ്കൂളുകളാണെങ്കിൽ സ്വകാര്യ സ്കൂളുകളാണെങ്കിൽ ഇപ്പോൾ സി ബി എസ് ഇ ഐ സി എസ് ഇ അതു പോലത്തെ സ്കൂളുകൾ ഉണ്ടിപ്പോൾ കൂടുതലും പ്രൈവറ്റായിട്ടുള്ള സ്കൂളുകളാണിപ്പോൾ കാരണം അവിടെ എന്തോണം ഫീസു കൊടുത്ത് നല്ല ഫീസു കൊടുത്ത് പിള്ളേരെ അതുപോലെ കെയറ് ചെയ്യും എന്ന് നല്ല എഡ്യൂക്കേഷൻ കിട്ടുമെന്ന് ഈ പേരെൻറ്റ്സ് അല്ല പേരെൻറ്റ്സ് മനസ്സിലാക്കി അങ്ങനെയാണ് അവരെ ആ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുന്നത് ഇപ്പോൾ സ്വകാര്യ സ്കൂളിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ എന്തുവാണ് കുട്ടികളെ ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു നാൽപ്പത് ഇരുപതും പിള്ളേരുണ്ടെങ്കിൽ ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ നോക്കണമെന്ന് ഇല്ല ഇപ്പോൾ ഞാൻ പകുതി എയ്ഡഡും അൺ എയ്ഡഡും ആയിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചത് എങ്കിൽ കൂടി എങ്കിൽ കൂടി എനിക്ക് അങ്ങനത്തെ ഒരു പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു പരിഗണന അങ്ങനെ കിട്ടീട്ടില്ല ഞാനത് പ്ലസ് ടു വരെ പഠിച്ചതു കൊണ്ട് എനിക്കത് അറിയാൻ ഞാനത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് കുറ്റം പറയും ചിലപ്പോൾ എൻ്റെ മിസ്റ്റക്കെന്നെ ആയിരിക്കും പക്ഷേ അതെനിക്കങ്ങനെ കിട്ടീട്ടില്ല അപ്പോൾ മറിച്ചിപ്പം ഞങ്ങളുടെ എനിക്കറിയാം പരിചയത്തിലുള്ളവർടെ റിലേറ്റീവ്സിൽ ഉള്ള പിള്ളാരൊക്കെ പഠിക്കുന്ന സ്കൂളെന്നു വെച്ചാൽ ഓരോരുത്തരേം ടീച്ചർ ടീച്ചേർസ് പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്ത് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അപ്പോൾ അവരെ ഗൈഡ് ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അങ്ങനെ ടീച്ചേർസ് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാവുന്നതു കൊണ്ടാണ് പറയുന്നത് ഇപ്പം മറ്റേ സ്കൂളിൽ സർക്കാർ സ്കൂളിലാണെങ്കിൽ അങ്ങനത്തെ ഇത് കിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അവർക്ക് ഡൗട്ട് ചോദിക്കാനും അല്ലെങ്കിൽ ടീച്ചേർസ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്തയാലും ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഫീസിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ ആണെങ്കിൽ ഒരുപാട് ഫീസ് തുടങ്ങി ഇപ്പോൾ പതിനായിരം ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കാണങ്കിൽ തന്നെ കുറഞ്ഞതൊരു ആറായിരം ഏഴായിരം അപ്പോൾ എനിക്കറിയുന്ന എൻ്റെ ഒരു റിലേറ്റീവ് കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് പതിനയ്യായിരം രൂപ കൊടുക്കണം ഒരു വർഷത്തേക്ക് അപ്പോൾ സർക്കാർ സ്കൂളിൽ നമുക്കിപ്പോൾ കൂടിപ്പോയാൽ ഒരു മുന്നൂറ് ആ ഒരു റേഞ്ച്ലുള്ള ഫീസെ ആവത്തൊള്ളൂ പിന്നെ ഓരോ അവിടെ സ്പോർട്സ് മറ്റു കാര്യങ്ങളൊക്കെയുണ്ട് അതിപ്പോൾ രണ്ടിടത്തും ഉണ്ട് എയ്ഡഡും അൺ എയ്ഡഡും ആയിട്ടുള്ള അല്ല പ്രൈവറ്റും ഗവൺമെന്റും സ്കൂളുകളിൽ ആ സ്പോർട്സ്ൻ്റെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള പിള്ളേരെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാനും വർക്ക് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിന്നതുകൊണ്ട് അതിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതെനിക്ക് ഓക്കെയായിട്ട് തോന്നി പിന്നെ അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിലും അതുപോലെ കെയറ് കിട്ടുന്നുണ്ട് അപ്പോൾ വ്യത്യാസം ഡിഫറെൻസ് ഇത്രയെയുള്ളൂ ഫീ ഇത് ഫീസ് കൊടുക്കേണ്ടി വരുന്നു പിന്നെ അതുകൂടാഞ്ഞിട്ട് പിള്ളേരെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കൂടി ഗവണ്മെൻ്റ് സ്കൂളുകളിൽ സ്കൂൾകളിലെ ടീച്ചേർസ് അല്ലെങ്കിൽ അതിൻ്റെ അതിന് അധികാരപ്പെട്ടവർ കുറെ കൂടി കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട് അപ്പോൾ അവർ കുറെ കൂടി ഓരോ കുട്ടികളായിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ പല കുട്ടികൾക്കും പല പല കഴിവുകൾ ആയിരിക്കാം പല ക്യാരക്ടേഴ്സ് ആയിരിക്കാം അപ്പോൾ അത് ആക്സെപറ്റ് ചെയ്ത് ആ കുട്ടീനെ നോക്കാം എന്ന് പറയുന്നത് അതൊരു അതൊരു എന്താ അതൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അത് പോലെ അങ്ങനത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ സർക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക അതനുസരിച്ച് അപ്പോൾ അവർ ബാക്കിയുള്ളവരെ നോക്കുന്നതായിരിക്കും അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ സ്റ്റേജ് ഫിയർ മാറ്റി മുൻപോട്ട് കൊണ്ടു വരുന്നതായിരിക്കും ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിലെ കുട്ടിന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല എന്തോന്ന് സ്റ്റേജ് ഫിയറ് ഉള്ള കുട്ടികളെ നമ്മൾ എടുത്ത് നോക്കാണെങ്കിൽ കുറവാണ് അത് പോലെ അത് അത് സെയിം ടൈം നമ്മൾ ഗവൺമെൻറ് സ്കൂളിലെ ഒരു കുട്ടീനെ എടുക്കാണെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം എത്താനായിട്ട് കുറച്ച് പാടുണ്ട് പക്ഷേ അവർക്ക് സ്റ്റേജ് ഫിയറ് കുറച്ച് കൂടുതലായിരിക്കാം കാരണം പ്രൈവറ്റ് സ്കൂളുകളിലെ ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അതൊക്കെ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ അതൊക്കെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അത് അങ്ങനത്തെ കുറച്ച് ഡിഫറെൻസ് ഉണ്ട്